ഞാനൊരു ട്രാവലിഷ്ടപ്പെടുന്നൊരാളാണ് കാരണം എനിക്ക് ജീവിതത്തിൽ പല നാടുകളും കാണണമെന്നാഗ്രഹിക്കുന്നൊരാള് ആണ് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുമുണ്ട് എനിക്ക് ഇന്ത്യയില് പല സ്ഥലങ്ങളെനിക്ക് ഇപ്പഴേ കാണാനും സ്ഥലങ്ങൾ കൂടുതൽ പരിചയപ്പെടാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ചെയ്യാൻ യാത്ര ചെയ്യുമ്പോൾ പല ബുദ്ധിമുട്ടുകളും അവിടുത്തെ കൾച്ചറില് നമുക്കനുഭവപ്പെടും കാരണം ഇന്ത്യ അറിയാം ഒരു ദരിദ്ര സ്ഥലങ്ങളാണ് കാര്യമായിട്ട് ഉള്ളത് നോർത്തിന്ത്യേലൊക്കെ പോലെതന്നെ ഞാനവിടെ പലപ്പോഴും പോകുമ്പോഴും എനിക്ക് ഒരു സേഫ്റ്റിയെപ്പോഴും പല സേഫ്റ്റിയെനിക്ക് അനുഭവപ്പെടാറില്ല കാരണം നമ്മള് നമ്മളെന്ത് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിലും അത് നമ്മള് ഭദ്രമായി സൂക്ഷിക്കണം കാരണം എന്തും നമ്മളെ കയ്യില്നിന്ന് നഷ്ടപ്പെടാം പിന്നെ ആ ഒരു അങ്കലാപ്പിലാണ് നമ്മളുത്തരേന്ത്യയിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നത് പലപ്പോഴും നമ്മള പല സാധനങ്ങളും മോഷണം പോയിട്ടുണ്ട് അതൊക്കെ എനിക്ക് യാത്രയിലെനിക്ക് ബുദ്ധിമുട്ട് തോന്നിയ കാര്യങ്ങളാണ് കാരണം നമ്മള വിലപിടിപ്പുള്ള ഒന്നും തന്നെ കൊണ്ട് പോകാൻ ശ്രമിക്കാതിരിക്കാൻ ശ്രമിക്കാതിരിക്കാം അതാണ് നല്ലത് കാരണം ഒന്നും കൊണ്ട് പോയിട്ട് കാര്യമില്ല പല പല സാഹചര്യങ്ങളിലായി പലതും നഷ്ടപ്പെടാം കാരണം ഇന്ത്യയില് ഒരു സുരക്ഷിതത്വവുമില്ല നോർത്തിന്ത്യയില് എവിടെ പോകാ പല സംസ്ഥാനങ്ങളും യാത്ര ചെയ്യാമെങ്കില് നമുക്ക് മനസ്സിലാവും കാരണം ദരിദ്ര ജനങ്ങളാണ് കൂടുതലായിട്ട് വിദ്യാഭ്യാസമില്ലാത്ത ആളുകളാണ് കാര്യമായിട്ട് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെയവര്ക്ക് അവിടെ മോഷണങ്ങളൊക്കെ പതിവായി നടക്കുന്നൊരേരിയയാണ് യാത്രയില് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയതു തന്നെ ഈ മോഷണം അതാണെനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായി അനുഭവപ്പെട്ടിട്ടുള്ളത്